ഹലോ ഹലോ സാറേ എൻ്റെ പേര് അഭിജിത്താണ് ഞാൻ എന്താ കാട്ടിക്കുളത്ത്ന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴാണ് ആലോച്ചിച്ചത് ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അത് നോക്കുന്നുണ്ട് നമ്മൾ എല്ലാ മാസവും അത് ചെയ്യുന്നതാണ് ആ ഓക്കെ ആ നമ്പറ് തരാനാണ് ഓക്കെ ആധാറിൻ്റെ ലാസ്റ്റല്ലേ ഓക്കെ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ആ അതന്നെ ആ അതന്നെ ഈ മാസം അവസാനം ആയപ്പോഴത്തേക്കും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ആ അത്ന്നെ അത്ന്നെ അത് എത്താത്തോണ്ട് നമ്മൾ അവിടൊരു പാർട്ടിയൊക്കെ നടത്തുമായിരുന്നു അപ്പഴാണ് ഞാൻ ആലോചിച്ചത് എന്താ ഗ്യാസിൻ്റെ കാര്യം ആ ഓക്കെ ഓക്കെ ആ നാളെ ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും അല്ലേ ആ ഓക്കെ ആ എന്തായാലും ടൗണിലേക്കെത്തിച്ചാൽ മതി സെറ്റക്കാം ഏ ആ അത് പൈസ ഓൺലൈനായിട്ട് അടക്കണോ അല്ല എന്താ ഇതായിട്ടായിരിക്കോ ആ ഓക്കെ ഓക്കെ